ഞാൻ ചിത്രരചന മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട് ചിത്രരചന മത്സരം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ നടക്കുന്ന മത്സരമാണ് ചിത്ര രചന മത്സരം അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചിത്രരചന മത്സരത്തിലൊക്കെ പോയി പിന്നെ നല്ല രീതിയിൽ വരച്ചു അങ്ങനെ അതായത് ആദ്യം ഡിസ്ട്രിക്ട് ലെവലാണ് വരിക അതു കഴിഞ്ഞിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് വരിക അത്യാവശ്യം കുഴപ്പം ഇല്ലാത്ത രീതിയിൽ വരച്ച് സ്ക്കൂളിൽ ചെന്ന് വരച്ച് അതായതിപ്പോൾ ഒരു മലയും ആദ്യം നമ്മളെങ്ങനെയാണ് വച്ചു കഴിഞ്ഞാൽ അവർ അവരൊരു ഇതു തരും ഒരു ടോപിക്ക് തരും അതിനനുസരിച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇപ്പം നല്ല രീതിയിൽ വരച്ചതുകൊണ്ട് അത്യാവശ്യം ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കയറി സ്റ്റേറ്റ് ലെവലിലെത്താൻ പറ്റിയില്ലെങ്കിലും സംസ്ഥാന തലത്തിലൊക്കെ എത്തി അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്